ഒരു ക്ലാസിക്കൽ നർത്തകന് വേണ്ടുന്ന കഴിവെന്ന് വെച്ചാല് പിന്നെ നന്നായിട്ട് മെയ് വഴക്കം വേണം അതേപോലെ തന്നെ ആ പാട്ടിൻ്റെ ഭാവത്തിനനുസരിച്ച് നമ്മളുടെ കൈകളും ശരീരവും പോകണം അതേപോലെ തന്നെ സിനിമാറ്റിക് ഡാൻസ് പോലെയല്ല സിനിമാറ്റിക് ഡാൻസ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് അത് അവതരിപ്പിക്കാൻ പറ്റും പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പഴത്തേക്ക് നല്ല മെയ് വഴക്കം വേണം അതേപോലെ തന്നെ എല്ലാ ദിവസവും അത് ചെയ്ത് പഠിക്കണം അത് നമുക്ക് അത്യാവശ്യമാണ് ക്ലാസിക്കൽ സിനിമാറ്റിക് ഡാൻസ് എന്ന് വെച്ചാല് നമ്മൾ അപ്പോൾ കണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പൊക്കെ നോക്കി നമ്മള് ചെയ്യുന്നു പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് എന്ന് വെച്ചാല് നമ്മള് എപ്പോഴും ചെയ്ത് ചെയ്ത് ചെയ്താണ് അതി അത് നന്ന് നല്ല നന്നായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത്